തീര്ച്ചയായിട്ടും എന്റെ ഇവിടെ എന്റെ തയ്യൽ പഠിക്കാന് വന്ന കുട്ടികള്ക്ക് ഞാൻ എന്റെ കൈകൊണ്ടു തന്നെ സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ നല്കിയിട്ടുണ്ട് അവര്ക്ക് ഒത്തിരി അവർക്ക് കല്യാണത്തിന്റെ തലേദിവസം അത് ഉപയോഗിക്കാനായിട്ടുള്ള മനസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പം നമ്മൾക്ക് നല്ല സന്തോഷമാണ് അവര്ക്ക് അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങള് അവർ പറഞ്ഞത് കൊണ്ടാണല്ലോ കല്യാണത്തിന്റെ തലേ ദിവസം അവര്ക്ക് അത് ഇടാനായിട്ടുള്ള ഒരു മനസ് വന്നത് അപ്പോൾ അത് സമ്മാനമായി നമ്മൾ നല്കിയിട്ടുണ്ട് അപ്പോൾ എന്റെ കഴിവിനെ കുറിച്ച് അവർ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ നമ്മൾ മിക്കതും തന്നത്താനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് സ്റ്റിച്ച് ചെയ്തു കട്ട് ചെയ്തു നമ്മൾ കൊടുക്കുന്ന വസ്ത്രങ്ങളാണ് അതിലൊക്കെ നമ്മൾക്ക് സന്തോഷമാണ് പിന്നെ നല്ല അഭിപ്രായങ്ങള് വരുന്നത് കേള്ക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കൊടുക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമാണ് ഒത്തിരി പേര്ക്ക് എന്റെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ ഞാന് നല്കിയിട്ടുണ്ട് കുട്ടികള്ക്കാണെങ്കിലും അടുത്ത വീട്ടിലെ അയല്വക്കത്തുള്ള കൊച്ചു കുട്ടികള്ക്ക് ആണെങ്കിലും ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അവര്ക്ക് അതിനോട് ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മളോട് സഹകരിക്കുന്നതിനെ കാണുമ്പോഴേക്കും നമുക്ക് സന്തോഷം ആണ് അതൊക്കെ നല്ല ഒരു അഭിപ്രായവും അവർ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ട് ആളുകളുടെ നമ്മുടെ കഴിവിനെ കുറിച്ച് അവർ പറയുകയില്ല നമ്മൾ തന്നെ അല്ലല്ലോ നമ്മുടെ കഴിവിനെ വിലയിരുത്തുന്നത് അവരാണ് നമ്മുടെ കഴിവിനെ വിലയിരുത്തുന്നത് അപ്പോൾ ആ കഴിവ് അവർ നമ്മൾ നമ്മളോട് പ്രകടിക്കുമ്പം നമ്മൾക്ക് അത് സന്തോഷം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയില് മുന്നോട്ട് പോകുന്നുണ്ട്